അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കൃഷിപ്പണി മികവോടെ ചെയ്യാനായിട്ട് സാധിക്കും അവർ നന്നായിട്ട് ഞങ്ങളുടെ ഇവിടെ സ്ഥാപനങ്ങളിൽ അവരുടെ നാട്ടിൽ കൃഷിപ്പണികളൊക്കെ അവർ നന്നായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് നമ്മുടെ ഇവിടെ ചെയ്യാനായിട്ട് അവർക്ക് നമ്മുടെ ഇവിടെയുള്ള ആളുകളെക്കാട്ടിലും നന്നായിട്ട് ചെയ്യാനായിട്ട് അവർക്കതിനുള്ളൊരു കഴിവുണ്ട് അപ്പം മെച്ചപ്പെട്ട തൊഴിലാളികൾ ആകാനായിട്ട് നമ്മൾ അത് കൃത്യമായിട്ട് എന്താണ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയൊക്കെ കാലാവസ്ഥയുടെ കാര്യങ്ങളും നമ്മുടെ കൃഷികളിലെ ഒക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ പിന്നെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ കൂട്ടത്തിൽ നമ്മൾ നിന്ന് എല്ലാം പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ അവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അത് ഞങ്ങളുടെ ഇവിടെ ഇത് പിന്നെ ഇവിടെ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ ഇവിടെ പല സ്ഥലങ്ങളിലും പല സ്ഥാപനങ്ങളിലും ഒക്കെ അവർ നന്നായിട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അവരെ വിളിച്ച് ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അവർ ആണ് ഞങ്ങളെ പലപ്പോഴും എന്തെങ്കിലും ഒക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ളവരെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തി പലരെയും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അവരെ കണ്ടെത്തി ഞങ്ങളുടെ കൃഷിപ്പണികളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ ഞങ്ങൾ വിളിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്